മലയാള ഭാഷ എന്നു പറയുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ ഭാഷയാണ് അത് ഒരു സംസ്ഥാനം ത്തിന് അകത്തുള്ള ആൾക്കാർ മാത്രം സംസാരിക്കുന്ന ഭാഷയാണ് പക്ഷേ ഹിന്ദിയെന്ന് പറയുമ്പോൾ അത് ഇന്ത്യ മുഴുവൻ ആരുടെ അടുത്ത് ചോദിച്ചാലും ഒരു വാക്കെങ്കിലും ഹിന്ദിയിൽ പറയാത്തത് ആരും കാണില്ല രണ്ടും അപ്പോൾ ഇത് രണ്ടും താരതമ്യം ചെയ്യപ്പെടുക എന്ന് പറയുമ്പോൾ ഏറ്റവും നമ്മുടെ ഔദ്യോഗിക ഭാഷയാണ് ഹിന്ദി നമ്മൾ ഇപ്പം നോർമലി ഇപ്പം ആരെ അടുത്ത് ഇപ്പം ഭാഷ അറിഞ്ഞു കൂടാത്ത ആൾ വന്നാലും നമ്മൾ ഒന്നെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ആയിരിക്കും നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് അപ്പോഴെ ഹിന്ദിയാണ് നമ്മൾ യൂസ്നഫുൾ എന്നുശ്ശേ നമ്മളെ നമ്മൾ ജനിച്ചു വളർന്നത് കേരളത്തിലായതുകൊണ്ട് നമുക്ക് മലയാളമേ കൂടുതൽ അറിയാവൂ പക്ഷെ നമ്മൾ മലയാളം പറയണം എങ്കിലും അതിൻ്റെ കൂടെ ഇംഗ്ലീഷും ശ്ശെ ഇംഗ്ലീഷെന്ന് സോറി നമ്മുടെ ഹിന്ദി ഇംഗ്ലീഷും വേണം ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും പ്രധാനമാണ് നമ്മൾ ഹിന്ദിയിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെതായ ശൈലിയിലും ഭാവത്തിലും സംസാരിക്കണം ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി ആൾ ഹിന്ദിക്കാരൻ മലയാളി ആയിരുന്നു പക്ഷെ ഹിന്ദി ആയില്ലെ നമ്മളങ്ങോട്ട് ആയി പൊക്കോളും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ താനെ അങ്ങോട്ട് പോകും അതാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ മലയാളം മലയാളം പറയുകയാണെങ്കിൽ നമുക്ക് കേൾക്കാൻ ഒരു രസമുള്ള ഭാഷയൊക്കെ തന്നെയാണ് പക്ഷേ അത് നമുക്ക് കേരളത്തിന് മാത്രം വേണ്ടിയുള്ളതാണെന്ന് പറയാനെ പറ്റുക കേരളത്തിലുള്ളവർക്ക് മാത്രം മലയാളം അറിയാവു നന്നായിട്ട് അപ്പം ബാക്കിയുള്ള സംസ്ഥാനത്തൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ചെങ്കിലും ഹിന്ദി അറിയും അവർ കോമണായിട്ട് ഇച്ചിരി നമുക്ക് അറിഞ്ഞു കൂടാത്ത ആൾകാരെ അടുത്ത് കമ്മൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഹിന്ദി ആയിരിക്കും കൂട് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും കൂടുതൽ ചൂസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഔദ്യോഗിക ഭാഷയും ഹിന്ദി തന്നെയാണ് അപ്പോൾ സ്കൂളിൽ നമ്മൾ ഹിന്ദി പഠിക്കാനും നമുക്ക് അത്ര ഒരു ഇത് കിട്ടാറില്ല പക്ഷേ സ്കൂളിൻ്റെ ആ ഇതേ ഉള്ളു നമുക്ക് അത്രയേ ഇത് കിട്ടാറില്ലെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന ആ ഹിന്ദിയെ നമക്കുമുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ചു കൂടെ ഹിന്ദി ഒന്ന് പഠിച്ചു പഠിക്കാൻ ശ്രമിക്കാം പഠിക്കാൻ ശ്രമിച്ചു അപ്പം നമുക്ക് വേറെ ഒരു സ്റ്റേറ്റിൽ പോയാൽ നമുക്ക് ഹിന്ദിയാ ആയാലും പറ അവിടെ നമുക്ക് ഹിന്ദി വേണമെങ്കിലും പറയാം അവിടെ ഹിന്ദി പറഞ്ഞു നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും കാരണം അവിടെ മലയാളത്തിന് ഒരു പ്രാധാന്യമില്ല അവിടെ ഹിന്ദിയാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ ആൾക്കാർക്ക് എല്ലാ ആൾക്കാർക്കും ഹിന്ദിയുടെ എന്തെങ്കിലും ഒക്കെ അറിയുമായിരിക്കും അപ്പം മലയാളം മലയാളത്തിനെ താഴ്ത്തി പറയുകയല്ല മലയാളം നമ്മുടെ മാതൃഭാഷയാണ് അപ്പോൾ നമുക്ക് മലയാളം നമ്മൾ ജനിച്ചു വളർന്നു മലയാളം പറഞ്ഞു വരുന്നവരുടെ അടുത്ത് നമുക്ക് മലയാളം പറയാനെ പറ്റത്തുള്ളൂ അപ്പഴ് അവിടേയും മലയാളികൾ കാണും പക്ഷെ നമ്മൾ അദർ എന്നുവച്ചാൽ അവിടെ ഒരു കടയിൽ പോയിട്ട് നമുക്ക് അരക്കിലോ സവാള വേണമെന്ന് പറയാൻ പറ്റുമോ പക്ഷെ അവിടെ ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് അത് തീർച്ചയായും കിട്ടും നമ്മൾ ഹിന്ദിയിൽ മാക്സിമം ഹിന്ദി പഠിക്കാൻ മാക്സിമം വേറെ രാജ്യത്ത് പോയി നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഒരു പക്ഷെ ഹിന്ദിയോ മലയാളം മാത്രം പഠിച്ചു വച്ചു കൊണ്ട് മറ്റൊരു രാജ്യത്ത് പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കണം അപ്പം നമ്മൾ എന്നെങ്കിലും കൂടെ ഹിന്ദി ഇംഗ്ലീഷ് അങ്ങനെയുള്ള ഭാഷ പഠിച്ചു വയ്കാണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ വേറെ എവിടെ പോയാലും ഇന്ത്യയിൽ തന്നെ എവിടെയൊക്കെ പോയാലും നമുക്ക് ആ ഭാഷ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാകും അപ്പം മാക്സിമം നമ്മൾ ഈ ഹിന്ദിയൊന്ന് കുറച്ചു കൂടെ ഒന്ന് ഡെവലപ്പ് ആയി എടുത്ത നമുക്ക് അടുത്ത കൺട്രികളിൽ പോവാൻ പറ്റും